ഞാൻ ഡസ്റ്റ് ബിൻ ആമസോൺന്ന് ഓർഡറ് ചെയ്തത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്കാണങ്കില് ഞാനിങ്ങനെ ഒരു പാത്രത്തില് എടുത്ത് വച്ചിട്ട് പുറത്ത് കൊണ്ട് പോയി കളയുക ചെയ്തോണ്ടിരുന്നത് അപ്പം എനിക്കൊരു ഡസ്റ്റ് ബിൻ അത്യാവശ്യമായിട്ട് തോന്നിയ കൊണ്ടാണ് ഞാൻ ഡസ്റ്റ് ബിൻ വാങ്ങിയത് ആമസോൺന്ന് ഓർഡറ് ചെയ്തു നല്ല ക്യൂട്ടാണ് അത് ചവിട്ടുമ്പം തന്നെ പ്രസ് ചെയ്യുമ്പ തന്നെ തൊറന്ന് വരും ഇടാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റായിരുന്നു നല്ല പാക്കിങ് ആയിരുന്നു നല്ല ഭംഗിയുണ്ട് പൈസ അധികമൊന്നും ആയിട്ടില്ല കുറച്ച് ചെറിയ പൈസയേ ആയിട്ടുള്ളു നമുക്ക് എപ്പഴും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് കിച്ചൺലെ വേസ്റ്റ് ഞാന് ഒരു മൂന്നെണ്ണം വാങ്ങി കിച്ചണില് ഒന്ന് പിന്നെ ബെഡ് റൂമില് പിന്നെ ഞങ്ങളുടെ സ്റ്റഡി റൂമിലേക്കും വേണ്ടിയിട്ട് നല്ല പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂപ്പർ പ്രോഡക്റ്റ് വെലേം വളരെ കുറവായിരുന്നു നല്ല എനിക്ക് ഇഷ്ട്ടമായി ആ പ്രോഡക്റ്റ് എന്തായാലും ഡസ്റ്റ് ബിന്ന്